ഞാൻ കുട്ടിക്കാലം മുതൽ ഈ ചെറിയ നെയ്ത്ത് മെഷ്യനിൽ നൂൽ നൂൽക്കുന്നതു കണ്ടു വളർന്നൊരു വ്യക്തിയാണ് എന്നോടൊപ്പം പഠിച്ചിരുന്ന ഒരു വ്യക്തി ടെക്സ്റ്റയിൽ ടെക്നോളജി പോളിടെക്നിക്കിൽ വിഷയം എടുത്തു പാസാകുകയും അദ്ദേഹം ബാംഗ്ലൂരിലും ബോംബെയിലും ഉള്ള ടെക്സ്റ്റൈലുകളിൽ ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ അവിടെ സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യവും എനിക്കു കിട്ടിയിട്ടുള്ളതും വളരെ സന്തോഷത്തോടെ ഓർക്കയാണ് മാത്രവുമല്ല ഈ തുന്നൽ എന്നു പറയുമ്പോൾ ഇപ്പോൾ ഒരു ഭവനത്തിൽ ഒരു തുന്നൽ മഷീൻ ഉണ്ടെങ്കിൽ അതിന് അവിടുത്തെ എല്ലാ തുന്നലും ഭംഗി ആയിട്ടു ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അത് ഒരു സന്തോഷം ഉള്ള കാര്യമാണ് കാരണം പലപ്പോഴും ചെറിയ ഒരു തുന്നൽ വിട്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കീറൽ വന്നു പോയി പുതിയൊരു തുണി ആയിരിക്കും അതു നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പിൽ പോയി നമുക്ക് അത് തുന്നിച്ചേർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളത് മടിക്കാറുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഓരോ വീടുകളിലും ഒരു തുന്നൽ മിഷനും അതു തുന്നാനായിട്ടുള്ളൊരു പഠനവും ഉണ്ടെങ്കിൽ ആ തുണികൾ നമുക്ക് ഭംഗിയാക്കി അല്ലെങ്കിൽ മോഡേൺ സ്റ്റൈലിൽ പുതിയ ട്രെൻഡുകൾ ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തൊള വന്നുകഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രിൻറ്റിങ്ങോടു കൂടി എന്തെങ്കിലും ഒരു പീസ് വെച്ചു പിടിപ്പിക്കാനോ ആ രീതിയിൽ നമുക്കൊന്നു മെച്ചപ്പെടുത്തി പുതിയൊരു ഫാഷനായിട്ട് അതു കൊണ്ടു പോകാനോ ഒക്കെ സാധിക്കും അത് എൻറ്റൊരു ആഗ്രഹമാണ്